എൻ്റെ വീട്ടിൽ എനിക്കൊരു പശു ഉണ്ട് ആ പശുവിൻ്റെ പേര് ഞാൻ അവളെ മാളൂന്നാണ് വിളിക്കുന്നത് ഭയങ്കര സ്നേഹമാണ് അവള് നമ്മള് ഈ ഒരു മനുഷ്യൻ കുഞ്ഞിനെ നമ്മള് എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെ ആണ് ഞങ്ങൾ അവളെ പരിപാലിക്കുന്നത് അപ്പോള് അവൾക്കും ഞങ്ങളാ പരിപാലിക്കുന്ന അത്രയും തന്നെ സ്നേഹം അവൾക്കും ഞങ്ങളോടുണ്ട് മാളൂട്ടി എന്ന് ഞങ്ങൾ വിളിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അവള് ഞങ്ങളുടെ പുറകേ ഓടിവരും അവൾ കരയും അഥവാ ഞങ്ങള് എവിടെയെങ്കിലും യാത്ര പോകുവാണ് പെരയെല്ലാം പൂട്ടി പോകുവാണെങ്കില്പോലും അവള് അവിടെ കിടന്ന് ഭയങ്കര ബഹളമാണ് ഞങ്ങള് വന്നുകഴിഞ്ഞാല് അവളെ ഒന്ന് അഴിച്ചുവിട്ടാൽ അവള് ഓടി നമ്മളെ വന്ന് കെട്ടിപ്പിടിച്ച് അവൾക്ക് എന്ത് ചെയ്യണോന്ന് അവൾക്ക് അറിയത്തില്ല അത്ര മനോഹരമായ രീതിയിലാണ് അവള് ഞങ്ങൾ അതുപോലെ തന്നെ ഞങ്ങളും വിളിക്കുന്നെ ഞങ്ങള് മക്കളെ പോലെ തന്നെ മാളൂട്ടീന്ന് വിളിക്കുമ്പോള് മക്കള്ക്ക് എത്രത്തോളം ഞങ്ങള് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ അതുപോലെ തന്നെ ഞങ്ങള് മാളൂട്ടിക്കും കൊടുത്തേക്കുന്നെ മാളൂട്ടിക്ക് എങ്ങനെയാണ് മാളൂട്ടിക്ക് ആ സ്നേഹം ഞങ്ങളോട് പ്രകടിപ്പിക്കുന്നേന്ന് ഞങ്ങള്ക്ക് പോലും അറിയത്തില്ല ഒരു നിമിഷം പോലും ഞങ്ങള്ക്ക് അവളെ കാണാതിരിക്കാൻ മേല അവള്ക്കും ഞങ്ങളെ കാണാതിരിക്കാൻ മേല അത്രയും നല്ല അടുപ്പമാണ് ഞങ്ങളും അവളും കൂടെ നല്ല സ്നേഹമാണ് വന്ന് നമ്മള് ഉച്ചയ്ക്കൊക്കെ ആണെങ്കില് ഞങ്ങള് നമ്മുടെ തിണ്ണയിലോ എവിടെയെങ്കിലും ഞങ്ങള് ഇരിക്കുവാണെങ്കില് അവള് കയറ് പൊട്ടിച്ച് പുറത്തു വരാൻവേണ്ടി ഭയങ്കര ബഹളമാണ് ഞങ്ങളുടെ കൂടെ വന്ന് അവള് വന്ന് അവിടെ വന്ന് ഇരുന്ന് ഞങ്ങളവിടെ ഉച്ചയൂണ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളവിടെ ഇരിക്കുവാണെ ഉടനെ തന്നെ അവളെ അഴിച്ചുവിടും അവള് ഓടിവന്ന് ഞങ്ങളുടെ കൂട്ടത്തില് വന്ന് ഇരിക്കും പിന്ന അവള് പിള്ളേര് സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞാലും അവള് പോവത്തില്ല പിള്ളേര് പോയിക്കഴിഞ്ഞാൽ എൻ്റെ മക്കള് മകളായിട്ട് അവളാണ് മാളൂട്ടിയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് മാളൂട്ടിന്ന് പറഞ്ഞാള് ഞങ്ങളുടെ ഒരു ഞങ്ങള്ക്ക് എന്ത് പെറ്റാണ് അവളോട് അതുപോലെ അവള്ക്കും തിരിച്ച് ഞങ്ങളോട് അത്രേം ആത്മാർത്ഥമായ സ്നേഹമാണ് അവൾക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നമ്മള് ഒരു വാക്ക് കൊണ്ടോ നമ്മള് പറയുന്നതല്ല മാളൂട്ടിക്ക് ഞങ്ങളോടൊള്ള സ്നേഹവും ഞങ്ങള്ക്കും മാളൂട്ടിയോടുള്ള സ്നേഹം അത്ര മനോഹരമായ സ്നേഹമാണ് ഞങ്ങളുടെ അയൽവക്കത്തുള്ളവരൊക്കെ ചോദിക്കും അയ്യോ എന്ത് സ്നേഹമാണ് നിങ്ങള്ക്ക് ഇവളോട് നിങ്ങളവളെ ഞങ്ങളതുപോലെ ഞങ്ങളും അതെ നമ്മൾ പെരയ്ക്കകത്തൊക്കെ അടുക്കളയിലാണെങ്കിൽ ഞാൻ അടുക്കളയില് പാചകം ചെയ്തുണ്ടിരിക്കുകയാണെങ്കില് അവള് കൂടെ വരും അവള് ചെറുതല്ലേ അവൾ കൂട വന്ന് നമ്മള ഉരുമ്മി ഉമ്മുണി ഒക്കെയായിട്ട് ഇങ്ങനെ അവള് നില്ക്കും ഇതാണ് അവളുടെ സ്വഭാവം അവൾ കുറച്ചുകൂടെ വലുതായിക്കഴിയുമ്പോള് ഇനി എങ്ങനെ ആണോ അവളെ മാറ്റി നമ്മൾ ഇതാക്കണ ഇപ്പോള് ഞങ്ങളുടെ ഒപ്പം ഞങ്ങള് എന്താണ് ഹസ്ബൻഡ് ആണെങ്കിലും പുറത്തോട്ട് തൊടിയിലോ എവിടെങ്കിലും പോവുവാണെങ്കില് അവളും കൂടെ പോകും അവളും കൂടെ പോയി അവിടയെല്ലാം തുള്ളി ചാടി ഇങ്ങനെ എടുത്ത് ഓടും പിള്ളേർക്കാണെങ്കില് ഒരു ദിവസം ക്ലാസില്ലാത വീട്ടിലിരുന്നാല് അവരും അതുതന്നെയാണ് പിള്ളേരുവായിട്ട് കളിക്കാനും പിടിക്കാനും ഒക്കെ പോകും ഒരു ഇതിലും അവള് ഭയങ്കര സന്തോഷത്തോടെയാണ് ഞങ്ങള്ക്ക് എന്ത് പറഞ്ഞാലും മാളൂട്ടി കഴിഞ്ഞിട്ടേ ഉള്ളു ഞങ്ങളുടെ വീട്ടിലെ എന്ത് കാര്യവും മാളൂട്ടിയെ ഞങ്ങളെ എന്തുമേല് സ്നേഹിക്കുന്നോ അത്രയും ഇരട്ടിയുടെ ഇരട്ടിയായിട്ടാണ് മാളൂട്ടി ഞങ്ങളെ സ്നേഹിക്കുന്നത് അത് നമ്മൾ അങ്ങനെ പറഞ്ഞാൽ തീരുന്നത് വാക്കല്ല അതുകൊണ്ട് മാളൂട്ടിനെ ഞങ്ങള്ക്ക് ജീവനായിട്ട് തന്നെയാണ് ഞങ്ങള് കാണുന്നത്